ഗെയ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മാറുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ വീടിനകത്ത് നമുക്ക് ഒത്തിരി ആളുകളൊക്കെ വരുന്ന സമയത്തൊക്കെ ആണേലും പ്രത്യേകിച്ച് കോവിഡ് ടൈമിലൊക്കെയാണേലും ഗെയിമുകളുടെ ഒരു ജീവിതമായിരുന്നു രണ്ട് വർഷത്തേക്ക് അപ്പം നമുക്ക് ലുഡോയൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എല്ലാവരും കൂടി നാലുപേരും ഒന്നിച്ചിരുന്നേച്ചിട്ട് ലുഡോ കളിക്കുകയും ഓരോരുത്തന്മാര് പൊട്ടിപ്പോകുമ്പോൾ അവന്മാരെ കളിയാക്കി വിടുവൊക്കെ ചെയ്യുന്നതാണ് ക്യാരംസും അതുപോലെ തന്നെ ഒരുത്തൻ അവിടെനിന്ന് അടിക്കുമ്പം നമ്മൾ കട്ടൗട്ട് കട്ട പുറത്ത് പോകുമ്പം അത് എടുത്ത് വെക്കുകയും അവസാനം പോയിൻറ്റ് കുറഞ്ഞ് കുറഞ്ഞു വരുമ്പം അവനെയൊക്കെ കളിയാക്കി വിടുന്നതൊക്കെ ഒരു രസമാണ് പാമ്പും കോണിയും അങ്ങനെയൊക്കെ ഉള്ളതെന്ന് വെച്ചാല് ചെസ്സ് ചെസ്സ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ബുദ്ധിക്കും എല്ലാം നല്ലൊരു ഇതാണ് ചെസ്സെന്നു പറയുന്നത് കാരണം അത് ചിന്തിച്ചിരുന്ന് കളിക്കേണ്ട ഒരു കളിയാണ് അങ്ങനെ ഒരുപാട് ഗെയിമുകൾ കോവിഡ് കാലഘട്ടവൊക്കെ വീടിനകത്ത് ഫോണുണ്ടായിരുന്നപ്പഴും അതിൻറ്റകത്തൊക്കെ നമ്മള് ഗെയിം കളിച്ചു മാത്രമാണ് സമയങ്ങള് കളഞ്ഞുകൊണ്ടിരുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ അതുപോലെ തന്നെ മഴയൊക്കെ പെയ്താലും വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ ഇച്ചിരി ചായയൊക്കെ കുടിച്ച് ഓരോ ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് എൻറ്റർടൈൻമെൻറ്റ് എനർജിയൊക്കെയാണ് കിട്ടുന്നത് കിട്ടാറുള്ളത് ഇപ്പം ഫുഡ് കഴിക്കുന്ന സ സമയത്താണേൽ പോലും നമുക്ക് ലുഡോയാണെങ്കിലും ക്യാരംസാ ചെസ്സ് അങ്ങനെയുള്ളതൊക്കെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം ചെറിയ ചെറിയ ഈ കട്ടകള് ചെസ്സ് മറ്റേ നമ്മുടെ ക്യാരംസിൻറ്റാത്തെ കട്ടകളൊക്കെ പോകുമ്പോൾ അത് അടിച്ച് കഴിയുമ്പോൾ എങ്ങോട്ടേലും തെറിച്ചു പോയി കഴിഞ്ഞാൽ തപ്പിക്കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് ഒരാളെപ്പോഴും കൂട്ടത്തിലൊക്കെ കാണുവൊക്കെ ചെയ്യും പിന്നെ ചെസ്സ് കളിക്കുമ്പം നമുക്ക് നല്ലൊരു ആസ്വാദനമാണ് കിട്ടുന്നത് കാരണം രാജാവിനെയാണോ മന്ത്രിനെ ആണോ പ്രജേനെയാണോ വീഴ്ത്തേണ്ടത് എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കും അവസാനം വീഴ്ത്തി കഴിയുമ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഏണിയും പാമ്പും അതിന്റെ അകത്ത് പാ പാമ്പിൻ്റെ വായിൽ ചെല്ലുമ്പോഴത്തേക്ക് താഴോട്ടു പോരുമ്പം പോരുകയും ഏണിയെ കിട്ടുമ്പം ഏണിയിൽ നിന്ന് മുകളിലോട്ട് കയറി പോകുമ്പോഴൊക്കെ ചെയ്യുമ്പഴാണ് ആ ഏണിയും പാ കോണിയും പാമ്പും എന്ന് ആ ഒരു ഗെയിമിൻ്റെ ഒരു ഇത് വരുന്നത് ഒരു കട്ടയിട്ട് കഴിഞ്ഞിട്ട് ആ കട്ട വീഴുന്ന നമ്പറനുസരിച്ച് നമ്മള് ഈ അക്കങ്ങൾ കയറ്റി വിടുകയും അവിടുന്ന് താഴോട്ട് വരുമ്പോഴൊക്കെ ചിലപ്പം മനസ്സിനൊരു നിരാശയുണ്ടാവും മുകളിലോട്ട് കയറിയിട്ട് താഴെ വന്നല്ലോ അല്ലേൽ താഴെ നിന്നിട്ട് മുകളിലോട്ട് കയറിയല്ലൊ എന്നൊക്കെയുള്ള സന്തോഷം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ചെസ്സ് നമുക്ക് നമ്മുടെ തലച്ചോറിന് ഏറ്റവും ഒരു എനർജറ്റികായുള്ള ഒരു ഗെയിമാണ് ചെസ്സെന്ന് പറയുന്നത് ചെസ്സ് സ്വാഭാവികമായിട്ടും രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ രണ്ടോ ഇല്ലേൽ മൂന്നുപേര് നാല് പേരൊക്കെ വെച്ച് കളിക്കാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പായിട്ടൊക്കെ കളിക്കുന്ന ഗെയിമാണ് ചെസ്സ്